ആ നമുക്ക് വേറെ ഏതെങ്കിലും ഫുഡ് ആഡ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഉണ്ടോ നമുക്ക് എപ്പോഴത്തേക്കിനും ഫുഡ് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ടൈം പറയാൻ പറ്റുമോ നമുക്കൊരു എട്ടു മണിയാണ് മാക്സിമം നമ്മൾ നോക്കുന്നത് അതുകഴിയുമ്പോഴത്തേനും ആൾക്കാരെല്ലാം പോകുവല്ലോ ഫങ്ക്ഷൻ കഴിഞ്ഞു പോകും അപ്പം ഫുഡ് നേരത്തെ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുവാണെങ്കിൽ എത്തിക്കുക ഇവിടെ വന്നുകഴിഞ്ഞ് കോൾ ചെയ്താലും മതി എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ വിലാസം വരുന്നത് എന്ന് വെച്ചാൽ എളംകുളം പള്ളി പാരിഷ് ഹാള് നേരെ എളംകുളം വന്നാൽ മതി അതുകഴിഞ്ഞ് എൻ്റെ ഫോണിൽ നമ്പറിൽ വിളിച്ചാൽ മതി ഓക്കെ എന്നാൽ താങ്ക്യു